നീന്തൽ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങാമെന്ന് പറയുമ്പോൾ നമുക്കാദ്യം വേണ്ടത് മനസ്സിനുള്ള ധൈര്യമാണ് മനസ്സിന് നമുക്ക് നീന്താൻ പഠിക്കാമെന്ന് പറ്റും നമുക്ക് മനസ്സിനൊരുറപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നീന്താൻ സിംപിളായിട്ട് പഠിക്കാം അപ്പോൾ നീന്താൻ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിന് ഒരു ധൈര്യം വേണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മടെ കൂടെ നീന്താൻ അറിയുന്ന ഒരാളിൻ്റെ കീഴിൽ പഠിക്കാമെന്നുള്ളതാണ് അതേപോലെ ആഴമില്ലാത്തവിടെ നീന്തി പഠിക്കണം ആഴം അധികം ഇല്ലാത്തവിടെ നീന്താൻ പഠിക്കുക അതേപോലെ നമുക്ക് ബോട്ടിലോ ഇല്ലെങ്കിൽ ബോട്ടിൽ കൊണ്ട് നമുക്ക് ചെറിയൊരു ഇടുപ്പിൽ ബോട്ടിലൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഇപ്പോൾ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന അത്രയും ബോട്ടിൽ വച്ചിട്ട് കെട്ടിയിട്ട് ഉള്ള നീന്തി പഠിക്കാം അതേപോലെ ട്യൂബ് നമ്മുടെ വണ്ടിയുടെ ടു വീലറിൻ്റെ ട്യൂബിൽ കാറ്റ് നിറച്ചിട്ട് നമുക്കതിൽ നീന്താൻ പഠിക്കാം അതേപോലെ വേറാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവരെ താങ്ങിപ്പിടിച്ചിട്ട് നമുക്ക് നീന്താൻ പഠിപ്പിക്കാം നന്നായി പഠിക്കാവുന്നതാണ് അതേപോലെ നന്നായിട്ട് വെള്ളം വെള്ളം ആവശ്യത്തിന് കുടിച്ച് ആവശ്യത്തിന് ഒരുപാട് കുടിക്കാണ്ടിരിക്കുക കൊളുത്തിപ്പിടിക്കുന്ന രീതിയിൽ കുടിക്കാണ്ടിരിക്കുക മിതമായ നിരക്കിൽ അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് വെള്ളം കുടിച്ച് നന്നായി സ്റ്റാമിനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നീന്താവുന്നതാണ് അതേപോലെ നീന്തുമ്പോൾ മുകളിൽ വന്നതിനു ശേഷം മൂക്കിലൂടെ മാത്രം ശ്വാസം എടുക്കുക മൂക്കിലൂടെ മാത്രം ശ്വാസം എടുക്കുക വായയിലൂടെ ശ്വാസം എടുക്കാതിരിക്കുക അപ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറും ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ശ്വാസം കറക്ടായിട്ട് എടുക്കാൻ പറ്റില്ല മൂക്കിൽക്കൂടെയും വായിൽക്കൂടെയും ഒക്കെ വെള്ളം കയറാൻ തുടങ്ങും മുകളിൽ വന്നു ശേഷം തല പൊക്കിയതിന് ശേഷം മാത്രം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക